എന്റെ ജീവിത ലക്ഷ്യമെന്നു പറയുന്നത് എന്റെ രണ്ടു മക്കളെയും പഠിപ്പിച്ച് സമൂഹത്തിനുപകരിക്കുന്ന രീതിയില് നല്ല നിലയിലാക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാനിപ്പോള് ചെയ്തിരിക്കുന്നത് സാമാന്യ വിദ്യാഭ്യാസം രണ്ട് മക്കൾക്കും ഇപ്പോള് കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് പ്ലസ് റ്റു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അടുത്തെ സി എയുടെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി എയുടെ ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാളെ ആ ലെവലില് പഠിപ്പിച്ച് നല്ല രീതിയിലാക്കിയെടുക്കാനാണ് എന്റെ ആഗ്രഹം എടുത്തു എടുത്ത് ചെയ്യാനായിട്ടാണ് അവന്റെ ആഗ്രഹം പിന്നെ ഒരു കുട്ടിയുള്ളതിനെ ഇപ്പോള് ഡിഗ്രി കഴിഞ്ഞിട്ട് നില്ക്കുകയാണ് അതിനെ ഐ എ എസ്സിന്റെ ട്രെയ്നിങ്ങിന് വിടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ളൊരു കോച്ചിങ്ങിന് ഞാൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോള് അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് മാക്സിമം സപ്പോട്ടുകളും കാര്യങ്ങളും കൊടുത്ത് അവരെ എന്റെ എനിക്ക് നേടാൻ പറ്റ്യതിനേക്ക് ഞാൻ നേടിയതിനേക്കാള് കൂടുതല് വിദ്യാഭ്യാസത്തിലേക്ക് അവരെ എത്തിക്കണമെന്നുള്ളത് അതാണെന്റെ ലക്ഷ്യം അപ്പോള് അതിന് വേണ്ടിയിട്ട് നമ്മള് ഫാമിലി മൊത്തത്തില് കൂട്ടായ്മ ആയിട്ട് പ്രവർത്തിച്ച് ഞങ്ങള് നല്ല രീതിയില് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അവര് നല്ല രീതിയില് പഠിക്കുന്ന കുട്ടികളുമാണ് അവർക്ക് ഐ എ എസ് എന്നു പറയുന്ന ലക്ഷ്യത്തിലും സി എയുടെ ഫൈനലിനു കിട്ടുന്നതിനു വേണ്ടിയിട്ടും ജഗദീശ്വരന് അനുഗ്രഹിക്കുമെന്നാണെന്റെ വിശ്വാസം അതനുസരിച്ച് അവര് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് രാവിലെ ഒരുപാട് ഹാഡ് വർക് ചെയ്യുന്നുണ്ട് അതിന്റെ കോച്ചിങ് ക്ലാസുകളില് കൃത്യമായി ഇരിക്കുന്നുണ്ട് അങ്ങനൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങള് അവര് അവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്റെ ലക്ഷ്യവും അത് തന്നെ എന്റെ ലക്ഷ്യം തന്നെ സഫലീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് എന്റെ മക്കളും ഒരുപാട് നല്ല രീതിയില് പ്രയത്നിക്കുന്നുണ്ട് പ്രയത്നിച്ച് നല്ലൊരു സന്തോഷകരമാമായ രീതിയിലാണ് ഇതുവരെയും നമ്മള് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്